ഏറ്റവും പ്രധാനമായിട്ടും നർത്തകർ നേരിടുന്നൊരു വെല്ലുവിളി എന്നെ സംബന്ധിച്ചിടത്ത് പ്രോത്സാഹനം ആണ് വീട്ടുകാരായാലും നാട്ടുകാരായാലും നർത്തകർ എന്ന് പറയുമ്പോള് അത് പഠിച്ചിട്ട് വലിയ കാര്യമില്ല അല്ലെങ്കിൽ ഭാവിയിൽ കല്യാണം കഴിഞ്ഞാല് അല്ലെങ്കിൽ കുട്ടികളുണ്ടായാൽ പിന്നീടതൊരു പ്രൊഫഷനായിട്ടോ പാഷനായിട്ടോ കൊണ്ട് നടക്കാൻ കഴിയില്ലായെന്ന് ഇടുങ്ങിയ ചിന്താഗതിയുള്ള മാനസികമായി ചിന്തിക്കുന്ന ആളുകളാണ് ഇപ്പോഴും നമുക്ക് ചുറ്റും ഉള്ളത് അപ്പോ വീട്ടുകാരിൽ നിന്നുതന്നെ പ്രോത്സാഹനമാണ് നമുക്കാദ്യമേ കുറവ് വീട്ടിൽ നിന്നും അതുപോലെ തന്നെ നാട്ടുകാരിൽ നിന്നും ഒക്കെ ഒരു പ്രോത്സാഹനക്കുറവ് പ്രധാനമായിട്ടും ഫീല് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ചെലവ് നമ്മളൊരു പരിപാടി അവതരിപ്പിക്കുമ്പോള് അതിൻ്റെ ഓർക്കസ്ട്ര മേക്കപ്പ് ഓർണമെൻറ്റ്സ് ഡ്രസിന് വളരെ നല്ലൊരു ചെലവ് വരുന്നുണ്ട് അപ്പോള് അത്തരത്തിലൊള്ള ചെലവ് എന്ന് പറയുന്നത് അഫോർഡ് ചെയ്യാൻ പല കുട്ടികൾക്കു പറ്റില്ല അതിന് ഒരു ഒരു ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സൊലൂഷൻ മാർഗം ആരും കുറച്ചും കൂടെ ഒരു സ്പോൺസറിങ്ങ് മേഖലകളിലേക്ക് സ്പോൺസേഴ്സൊക്കെ ഈ മേഖലകളിലേക്ക് കടന്ന് വരുവാണെങ്കില് കൂടുതലും നൃത്തത്തിൻ്റെ ഒരു ആ ആവശ്യകത അല്ലെങ്കിലൊരു ഇമ്പോർട്ടൻസ് മനസിലാക്കാത്തതുകൊണ്ടാണ് അങ്ങനൊരു ആ ഇമ്പോർട്ടൻസ് മനസിലാക്കി അങ്ങനെ സ്പോൺസറിങ്ങൊക്കെ വരികയാണെങ്കില് അത്തരത്തിൽ പ്രശ്നങ്ങൾക്ക് കുറച്ചുംകൂടെ ഒരു പരിഹാരം കാണുമായിരിക്കും അതൊരു പ്രധാനമായിട്ടും ഒരു പോരായ്മയാണ് നമ്മള് ഇപ്പോള് ഒരു നൃത്തം അഭ്യസിപ്പിച്ച് പഠിച്ച് അരങ്ങേറി കഴിഞ്ഞ് ചെലവുകളെല്ലാം ചെയ്താലും പിന്നീട് നമുക്ക് ലഭിക്കുന്ന വേദികളും അത് നമുക്കൊത്തിരി വേദികൾ ലഭിച്ചാല് മാത്രമാണ് നമുക്കത് നമ്മടെ കലയെ കൂടുതല് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളു ഇന്ന് സോഷ്യൽ മീഡിയയൊക്കെ സജീവമായതുകൊണ്ട് ഒത്തിരി നല്ല ഡാൻസേഴ്സ് അവരുടെ കരിയർ അല്ലെങ്കിലവരുടെ ആ ഒരു നൃത്ത മേഖല ഒത്തിരി ഒത്തിരി ഒത്തിരി വിപുലീകരിക്കാനവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാലത് അതിന് പറ്റാത്ത ഇനിയും അതിലേക്ക് എത്തിപ്പെടാത്ത സാമ്പത്തികമായി പിന്നോട്ട് നില്ക്കുന്ന സാംസ്കാരികമായും പിന്നോട്ടു നില്ക്കുന്ന കുട്ടികളും ഉണ്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും പഠിക്കാൻ കഴിയാത്ത കുട്ടികളുണ്ട് അപ്പോള് അവരെപ്പഴും എസ്പെഷ്യലി ഗ്രാമങ്ങളിലൊക്കെ കുട്ടികൾക്ക് സാധാരണക്കാരൻ്റെ മക്കൾക്ക് സാധാരണ ജോലി ചെയ്യുന്ന മക്കൾക്കൊക്ക നൃത്തം പഠിക്കുന്നെതിനേക്കാൾ ഉപരി നൃത്തത്തിൻ്റെ അരങ്ങേറ്റം അല്ലെങ്കില് ഒരു വേദി പങ്കിടുക നൃത്തം പഠിച്ചതൊരു വേദി പങ്കിടുമ്പോൾ അതില് നമുക്ക് കൊടുക്കേണ്ടി വരുന്ന ചെലവുകള് കൂട്ടിമുട്ടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ഈ പറഞ്ഞ മാതിരി നൃത്തങ്ങള് ചെയ്യുന്നവര് ആട്ടക്കാരിയാണ് എന്ന് പറഞ്ഞ് പിന്തള്ളപ്പെടുന്ന ഒരു സമൂഹം ഉണ്ടിപ്പോഴും ഒരു ചീത്ത മെൻറ്റാലിറ്റിയിലൂടെ കാണുന്ന ആൾക്കാരുകളുണ്ട് എന്നാല് പൂർണ പിന്തുണയോടു കൂടി ഭാര്യയെ ആയാലും മക്കളെയായാലും നൃത്തത്തിന് കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന ആൾക്കാരുകളും വീട്ടുകാരും അയൽവക്കക്കാരൊക്കെയുണ്ട് എന്നാലും എല്ലാത്തിലും നല്ലതും തിന്മയും പോലെ ആൾക്കാരുകളുണ്ട് പരിശീലനം ഉണ്ടെങ്കിലും നല്ല നല്ല അധ്യാപകരുണ്ട് എന്നാലും ചില എല്ലാത്തിലും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എപ്പോഴും ഉണ്ടാവും നല്ലതുണ്ടാകും ചീത്തയുണ്ടാകും പരിശീലനം കുഴപ്പം ഒന്നുമില്ല കൂടുതലും നമുക്ക് വേണ്ടത് പിന്തുണയും ഫിനാൻഷ്യൽ സപ്പോർട്ടും പങ്കിടാനുള്ള നമ്മുടെ ഈ കഴിവിനെ പ്രദർശിപ്പിക്കാനുള്ള വേദികളുടെ അഭാവങ്ങളൊക്കെയാണ് കൂടുതലും പ്രശ്നമായിട്ടെനിക്ക് തോന്നിയിട്ടുള്ളത്